മലയാള ഭാഷയും ഹിന്ദി ഭാഷയും താരതമ്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഹിന്ദി ഭാഷ എന്നു പറയുന്നത് ഒരുപാട് വലിയ ആൾക്കാർ എന്നു വെച്ചാൽ വലിയ ആൾക്കാരെന്നല്ല ഒരുപാട് അധികം ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി എന്നു പറയുന്നത് പക്ഷേ മലയാള ഭാഷയാണെന്നുണ്ടെങ്കിൽ കുറച്ചാൾക്കാർ ആയിരിക്കും ഈ മലയാള ഭാഷ കുടുതലായിട്ട് ഉപയോഗിക്കുക പക്ഷേ എന്നാലും മലയാളികൾക്ക് അതായത് കേരളത്തിലുള്ളവർക്ക് ആ എന്തു പറയാൻ മലയാള ഭാഷ എന്നു പറയുന്നത് ഭയങ്കര ഇതാണ് പ്രൗഢായിട്ടുള്ള മോമെൻ്റ് ആണത് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മലയാള ഭാഷ വെച്ചിട്ടു തന്നെയാണ് നമ്മുടെയൊക്കെ കേരളത്തിലുള്ള ആൾക്കാരെ തന്നെ അറിയുന്നത് അതായത് മലയാളികൾ എന്നു തന്നെയാണ് അവരെ അറിയപ്പെടുന്നത് അതുകൊണ്ടും മലയാളികൾക്ക് ഇപ്പോഴും പ്രിയപ്പെട്ട ഒരു ഭാഷ മലയാളം തന്നെയാണ് മലയാളികൾ എവിടെ പോയാലും തിരിച്ചറിയുന്ന ഒരു തിരിച്ചറിയുന്നതെന്നു വെച്ചുകഴിഞ്ഞാൽ ഈ മലയാളം എന്നൊരു ലാംഗേജ് വെച്ചിട്ടു തന്നെയാണ് മലയാളികൾ എവിടെ ചെന്നു കഴിഞ്ഞാലും തിരിച്ചറിയാൻ പറ്റുന്നത് അതുപോലെ ഹിന്ദി ലാംഗേജ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഔദ്യഗികമായിട്ട് എല്ലായിടത്തും തന്നെ ഉപയോഗിക്കുന്നത് അതെന്നെ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുന്ന ഒരു ഭാഷ കൂടിയാണ് ഹിന്ദി എന്നു പറയുന്നത് സ്കൂളിലായാലും പഠിക്കണമെങ്കിൽ തന്നെയും കുഞ്ഞു പിള്ളേർക്ക് വരെ ഉള്ള ഒരു ലാംഗേജ് ആണ് ഈ ഹിന്ദി എന്നു പറയുന്നത് ഹിന്ദി ഒരുപാട് ഏതാണ്ട് എല്ലാവർക്കും എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ലോകത്തിലെ എല്ലാവർക്കും തന്നെ അറിയാമെന്നുള്ള ഒരു ലാംഗേജാണ് ഹിന്ദി എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ആൾക്കാർക്ക് അത്രയും ഹ്യൂജ് എമൗണ്ട് ആൾക്കാർക്ക് അറിയാവുന്നുള്ള ഒരു ലാംഗേജാണ് ഹിന്ദി പക്ഷേ മലയാളം എന്നു പറയുന്നത് കുറച്ച് ആളുകളിൽ മാത്രം നിൽക്കുന്ന ഒരു മലയാളം എന്ന് പറയുന്നത് ഒരു ലാംഗേജ് ആണ്